ഹലോ ചേട്ടാ ഞാനൊരു മൈക്രോസോഫ്റ്റ് എക്സ്ബോസ് സിരീസെക്സ് ബുക്കെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോള് അതിന് ഷിപ്പിങ് ചാര്ജ് ഒഴിവാക്കാനായിട്ടുള്ളൊരു പ്രോമോക്കോഡെൻറ്റൈലുണ്ട് അപ്പോള് അതിന്റെ കാര്യങ്ങളെങ്ങനെയാണ് നമ്മളത് ഡയറക്റ്റായിട്ടെടുത്ത് അപ്ളൈ ചെയ്യുവാണോ അതെയോ അതെവിടെയാ കൊണ്ടുപോയി പേയ്സ്റ്റെയ്യണ്ടെ ആ കോഡിന്റെ ഫുള് ഡിജിറ്റ്സ് വേണോ അതോ ലാസ്റ്റ്ത്തെ ഡിജിറ്റ് മാത്രം മതിയോ അതൊന്നൊന്ന് ക്ലാരിഫൈ ചെയ്തൊന്നു പറയാമോ അപ്പോള് എങ്ങനെയാണതിന്റെ ഉ ഉപയോഗിക്കണ്ടേന്നെനിക്കത് കൃത്യമായിട്ടുള്ളൊരു ഇന്ഫര്മേഷന് കിട്ടിയിട്ടില്ല പ്രൊമോ കോഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രൊമോ കോഡെങ്ങനെ ഷിപ് ഷിപ്പിങ് ചാര്ജൊഴിവാക്കാനായിട്ട് യൂസെയ്യാമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല